ഉച്ചയൂണിനും അത്താഴത്തിനുമായി ചോറാണ് ഞങ്ങളുടെ പ്രധാന ആഹാരം ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂടാനാവാത്ത ഒന്നാണ് മീൻ കറി പിന്നീട് പച്ചക്കറി വിഭവങ്ങളിൽ അവിയൽ സാമ്പാറ് തോരൻ മെഴ്ക്ക് പെരട്ടി പുളിശ്ശേരി പിന്നെ അച്ചാറ് പപ്പടം എന്നിവ അടങ്ങിയതായിരിക്കും ഉച്ചയൂണ് രാത്രിയിൽ അതുപോലെ തന്നെ അത്താഴത്തിനായി ചപ്പാത്തി ഒന്നുങ്കിൽ വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും കാണും പിന്നീട് അപ്പവോ അല്ലെങ്കിൽ അതുവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കറികളോ ആയിരിക്കും രാത്രിയിൽ ഒരുക്കുന്നത് ഇതൊന്നുമല്ല എങ്കിൽ രാത്രിയിൽ ഉച്ചയൂണിനെ പോലെ തന്നെ രാത്രിയിൽ ഊണ് ഒരുക്കും